ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരാളാണ് എൻ്റെ വീട്ടിലെ അവസ്ഥകളെനിക്ക് നന്നായിട്ടറിയാം കാരണം കൃഷിക്ക് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും വിലയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ രാസവളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം വാങ്ങിക്കാനും കീടനാശിനികൾ വാങ്ങിക്കാനൊക്കെ ഒരുപാട് പൈസയൊക്കെ മുടക്കുന്നുണ്ട് പഷേ വരവിനനുസരിച്ചുള്ള അല്ല ചെലവിനനുസരിച്ചുള്ളൊരു വരവില്ല അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പഴ്ത്തേക്കും ഞങ്ങടെ കുടുംബോക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ കാരണവർമാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ ടി വി ഞാൻ തുറന്നു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നുമല്ല അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ അത് ഇത് അവരുടെ നേട്ടം അവരുടെ സംഭാവന ഇവരുടെ സംഭാവന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാത്രമാണ് ഈ മാധ്യമങ്ങളിൽ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് പിന്നെ എത്രമാത്രം ഒരു കർഷകരുടെ പ്രശ്നങ്ങളിലേക്ക് മാധ്യമം ഇടപെടുന്നുണ്ടോ അതിനനുസരിച്ച് അവർക്ക് ഉന്നമനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് മാധ്യമങ്ങളുടെ പങ്ക് വളരെ കുറയുന്നു അതുകൊണ്ടുതന്നെ കർഷകരുടെ ആവശ്യങ്ങളാരും കാണുന്നില്ല അതുകൊണ്ടുതന്നെ വളരെ വലിയ കർഷക ആത്മഹത്യകളൊക്കെ നടക്കുന്നു ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിത് കൊടുമ്പിരികൊണ്ട് മുന്നോട്ടു കൊണ്ടുപോവുമെങ്കിലും പിന്നെ അവരെക്കുറിച്ച് അവരെ കുടുംബത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കും മുന്നോട്ട് വരുന്നില്ല അതുകൊണ്ടുതന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുന്നുമില്ല എന്നെ എത്രമാത്രം ഈ മാധ്യമങ്ങൾ കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ആ ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ അല്ലെങ്കിൽ അധികാരികളുടെ ഭരണകർത്താക്കളുടെ കണ്ണ് തുറക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പം റബ്ബറ് പിന്നെ വളരെ കുറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ റബ്ബറ് വെട്ടിനീക്കുന്നു റബ്ബറ് വെട്ടിക്കളഞ്ഞൊരു കർഷകനെ പത്രത്തിൽ കണ്ടു തീർന്നു അയാളുടെ ഇനി ഭാവി എന്ത് അടുത്ത അയാളെ സ്റ്റെപ്പ് എന്ത് അയാൾ ആത്മഹത്യയിലേക്കാണ് നീങ്ങുന്നത് അയാളുടെ കുടുംബം പട്ടിണിയാണോ ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല അവ എന്തൊക്കെ എന്തുകൊണ്ടാണത്രയും സംഭവിച്ചത് ആദ്യത്തെ ഒന്നു രണ്ട് ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ പേരെ ചോദ്യം ചെയ്യുമായിരിക്കും അതുകഴിഞ്ഞ് പിന്നെ ഇല്ല അത് ആ ഒരു കുടുംബത്തിൻ്റെ കണ്ണീരായിട്ടൊരു വേദനയായിട്ട് അല്ലെങ്കിലൊരു കർഷകൻ്റെ വേദനയായിട്ട് മാത്രം മാറുന്നു അതുപോലെതന്നൊരു ബിസിനസ്സ് സ്ഥാപനം പൂട്ടിപ്പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊരു കുഞ്ഞു പ്രശ്നം ഉണ്ടായാൽ മാധ്യമങ്ങൾ അതിൻ്റെ അകത്ത് എത്രമാത്രം ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ അനുസരിച്ച് മാത്രമേ അത് ഒരു മുന്നോട്ടായിട്ട് പോകാനായിട്ട് പറ്റു പിന്നെ അത്രയെ ഒരു അവർക്ക് വേണ്ടിയേ സപ്പോർട്ട് ചെയ്യുള്ളു മാധ്യമങ്ങളുടെ പങ്ക് ശരിക്കും സമൂഹത്തിന് വളരെ വലുതാണ് മാധ്യമങ്ങൾ ആർക്കുവേണ്ടി വാദിക്കുന്നുവോ മാധ്യമങ്ങൾ ആരെക്കുറിച്ച് പറയുന്നു മാധ്യമങ്ങളെ കണ്ടിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ ആശയവിനിമയം നടത്തുന്നത് അവരുടെ ഭാഗത്തെ സമൂഹം നിൽക്കുള്ളൂ ഇപ്പോൾ ഞാനൊരു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊരു എന്നെ മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ മാധ്യമങ്ങൾ പൊക്കി പിടിച്ചിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും എൻ്റെ തെറ്റല്ലാതായിട്ട് മാറും പക്ഷേ ഞാനിപ്പൊരു തെറ്റു ചെയ്യാതെ തന്നൊരു തെറ്റിദ്ധാരണ എൻ്റെ പേരിൽ വന്നിട്ടത് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മാധ്യമം സംസാരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാനതിൻ്റകത്ത് വലിയൊരു കുറ്റവാളി തന്നെയായിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ശരിക്കും ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടുതന്നെ മാധ്യമങ്ങൾ സപ്പോർട്ട് ശരിക്കൊരു കർഷകർക്ക് വന്നാൽ മാധ്യമങ്ങൾ എത്രമാത്രം കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു രീതിയിലേക്കൊക്കെ മാത്രമേ കർഷകർ ഉന്നമനത്തിലേക്ക് അതുപോലെ തന്നെ കൈ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കുള്ളൂയെന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ കർഷകറൊരുപാട് കുറഞ്ഞതിൻ്റെ കാരണം തന്നെ ഈ കർഷക ആത്മഹത്യ വർദ്ധിച്ചതിൻ്റെ കാരണം തന്നെ കൃഷീൻ്റെ മേഖലകളിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമേഖല ഭരണകർത്താക്കളുടെ ഇടപെടലുകൾ വളരെ കുറയുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ചു പറയാം ഇത് മാധ്യമങ്ങളാണ് കർഷകരെ സപ്പോർട്ട് ചെയ്യേണ്ടതും